കേരളത്തില് പ്രധാനമായിട്ട് ഉള്ള കോട്ടയിലൊന്നാണ് ബേക്കൽകോട്ട ബ്രിട്ടീഷുകാർ പണി ചെ കഴിപ്പിച്ച ഒന്നാണ് അപ്പോൾ അത് ഇതൊര് കേരളത്തില് ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്തെ കുറിച്ചറിയാൻ അതിൽ അത് ആ ഒര് പ് സ്മാരകം നമുക്ക് സാധിക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഒര് കവടിയാർ കൊട്ടാരം അത് ഇതേപോലെ വളരെ പ്രശസ്തമായ കൊട്ടാരമാണ് അതായത് രാജ ഭരണം നിലനിന്നിരുന്ന സമയത്ത് കവടയാർ കൊട്ടാരത്തിൽ രാജാക്കന്മാർ കവടയാർ കൊട്ടാരത്തിലാണ് രാജാക്കന്മാർ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരുന്നത് ഇപ്പോൾ രാജ ഭരണമില്ലെങ്കിലും ആ ഒരു ഒരു കൊട്ടാരം സന്ദർഷകർക്കായി സന്ദർശനത്തിന് വേണ്ടി അതായത് കേരളത്തിൻറ്റെ ഒരു രാജഭരണ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ കൂടുതലറിയാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലവര് ഒരു വിനോദ സഞ്ചാര മേഖലയായിട്ട് ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്